ഇപ്പം നമ്മുടെ ഗ്രാമത്തിലെ പലചരക്ക് സാധനങ്ങൾ അല്ലെങ്കിൽ ഈ വക കാര്യങ്ങൾ കിട്ടുന്ന ഒട്ടനവധി കടകളിണ്ടിപ്പോൾ ഹോൾസെയിലായിട്ട് കിട്ടുന്ന കടകളുണ്ട് റിറ്റൈൽ ആയിട്ട് കിട്ടുന്ന കടകളുണ്ട് ഇപ്പോൾ ദേ ഇവിടെ ശിവേട്ടന്റെ കടയുണ്ട് ഇപ്പം ഞാനിപ്പോൾ പേരെടുത്ത് പറയാൻ നമ്മുടെ നോക്കുകയാണ് പറഞ്ഞാൽ നമ്മുടെ അടുത്തുതന്നെ ശിവേട്ടന്റെ കട അവിടെ സാധനങ്ങളൊക്കെ നമുക്ക് ഹോൾസെയിലായിട്ട് എല്ലാ സാധനങ്ങളും കിട്ടും പിന്നെ സൂപ്പർമാർക്കറ്റുകളുണ്ട് രണ്ടുമൂന്നെണം അവിടെ ഈ പലചരക്കാണ് അങ്ങനെ സാധനങ്ങൾ അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഇപ്പോൾ നമുക്ക് ഹോൾസെലായിട്ടും റിറ്റൈൽ ആയിട്ടും കിട്ടുന്നുണ്ട് അവിടെ നമ്മളിപ്പോൾ വില പേശുകയെന്നു പറയുമ്പോൾ പല രീതിയിൽ വേണമെങ്കിലിപ്പോൾ ശിവ നമുക്ക് അറിയുന്നാൾക്കാരാണെന്നറിയുമ്പോൾ നമുക്കവർ ആ ചിലപ്പോ രണ്ടുരൂപയും മൂന്നുരൂപയും ഒക്കെ ചില സമയത്ത് കുറച്ചുതരാറുണ്ട് അഥവാ നമുക്ക് ഇപ്പോൾ അറിയാത്ത കടകളിൽ പോയി കഴിഞ്ഞാൽ അവരോട് പറഞ്ഞാൽ അവർ ചിലപ്പോൾ കമ്മി ആക്കിത്തരും ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് എടുക്കുകയാണെന്ന് പറയുമ്പോൾ അവർ സാധനങ്ങൾക്ക് എന്തായാലും വില കമ്മി ആക്കിത്തരും അതെന്താണെന്ന് പറഞ്ഞാൽ യൂഷ്വല്ലി കച്ചവടക്കാരൻ്റെ ഒരു സാമാന്യ മര്യാദ എന്ന രീതിയിലവർ ചെയ്ത് തരണതാണ് എന്താ അവർ കച്ചവടം നിലനിർത്താൻ വേണ്ടിയിട്ടവർ പല ടെക്നിക്കുകളും ഉപയോഗിക്കുന്നുണ്ട്